ഞങ്ങള്ക്കൊരു കോഴി ഫാമുണ്ട് അതില് ഒരു പത്ത് മുന്നൂറ് കോഴികളെ വളർത്തുന്നുണ്ട് അത് ഞങ്ങള് ഹോൾസെയിലും റീറ്റെയ്ലുമായ്ട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ഞാനും എൻ്റെ ഭർത്താവും കൂടെയാണ് ചെയ്യുന്നത് ആ അതിനെ വളർത്തി ഞങ്ങള് ആവശ്യം അനുസരിച്ച് എത്തിച്ച് കൊടുക്കാറുണ്ട് ഓരോത്തർക്കും ഒന്നുങ്കി വീട്ടില് വന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ഞങ്ങള് ഓഡര് കിട്ടുന്നതനുസരിച്ച് എത്തിച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ പ്രോസസ്സിങ് ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളിക്കാരനാണ് ചെയ്യുന്നത് ഞാനതിന് കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അത് ന്നെ ഞങ്ങള് വേറൊരു ഫാമിലേക്കാക്കും പിന്നെ അതിനെ വെട്ടുന്നതിനും മുന്നേ ഇങ്ങനെ അതിന് തീറ്റ കൊടുത്ത് തലേ ദിവസം തന്നേ തീറ്റ കൊടുത്ത് അതിനെ ഇടാറുണ്ട് അതിനേക്കുറിച്ച് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡാണ് അതിനെ എല്ലാം വെട്ടുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ക്ലീൻ ചെയ്യുക മീൻസ് അത് തൊലി ഉരിഞ്ഞ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങള് ആവശ്യാനുസരണം അതിൽനിന്ന് ഉപഭോക്താവിൻ്റെ ഇതനുസരിച്ച് ഞങ്ങള് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ആ ഞങ്ങള് ഫാമെന്ന് പറഞ്ഞാല് കുറച്ച് നല്ല ഒരു രീതിയിലാണെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ കൂടുകളുണ്ട് ആ കൂട്ടിലിട്ടാണ് കോഴിയെ വളർത്തുന്നത് അപ്പോള് അത് അങ്ങനെ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആ ബ്രോയിലര് കോഴികളാണ് നാടൻ കോഴിയില്ല സാധാ ബ്രോയിലര് കോഴികളാണ് നാടന് അങ്ങനെ വലിയാ രീതി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങള് ആ ബ്രോയിലര് കോഴികളെ ഉപയോഗിക്കുന്നത് പിന്നെ ഫാമെന്ന് പറയുമ്പോള് അതെല്ലാം ഞങ്ങള് വൃത്തിയാക്കി എല്ലാം നല്ല രീതീ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് വേസ്റ്റൊക്കെ ഞങ്ങള് അതിന് വേറെ കമ്പോസ്റ്റ് കുഴികളൊക്കെ ഉണ്ട് വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയാനായിട്ടുള്ള രീതിയിലുള്ളതെല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് എല്ലാം ഞങ്ങള് കൈകാര്യം ചെയ്യുന്നത് ആ ഞങ്ങളുടെ ഒരു ജീവിത മാർഗ്ഗം തന്നെയാണെ അത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹസ്ബൻഡും ഞാനും കൂടെയാണ് എല്ലാം ചെയ്തു മുന്നോട്ടു പോകുന്നത് കോഴികളെ നല്ല രീതിയില് തന്നെയാണ് എല്ലാം വൃത്തി കൂടൊക്കെ എല്ലായ്പ്പോഴും വൃത്തിയാക്കി നല്ല രീതിയില് തന്നെയത് ഞങ്ങള് കൈകാര്യം ചെയ്യുന്നുണ്ട് അതങ്ങനെ മുന്നോട്ട് പോവുന്നു ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പഞ്ചായത്തുകളില്നിന്നൊക്കെ ഇങ്ങനെ കോഴികളൊക്കെ അത് കിട്ടുന്നതനുസരിച്ച് ഞങ്ങള് വാങ്ങാറുണ്ട് വാങ്ങാറുണ്ട് ആ രീതിയില് ആ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നല്ല തീറ്റ തന്നെയാണ് അതിന് ഞങ്ങള് കൊടുക്കുന്നതും അതിനെ ഞങ്ങള് നോക്കുന്നതും പിന്നെ നമ്മുടെയൊരു ജീവിതമാർഗ്ഗമല്ലേ അത് അതുകൊണ്ട് നമ്മളാ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ ആ ഒരു ഇതില് എല്ലാം നല്ല ക്ലീനിങ്ങും ചെയ്ത് എല്ലാം വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് എല്ലാ അതിൻ്റെ പ്രൊസസിങ്ങെല്ലാം നടക്കുന്നത് പിന്നെ ആവശ്യം അനുസരിച്ച് എല്ലാവർക്കും ഞങ്ങളെത്തിച്ച് കൊടുക്കും ഒന്നുങ്കി വീട്ടിലോട്ട് വരും അല്ലെങ്കിൽ ഫോൺ വഴിയുള്ള കാര്യങ്ങൾ അതങ്ങനെ ചെയ്യും അതങ്ങനെ ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോവുന്നത് നല്ല രീതിയിൽ പോകുന്നുണ്ട്